ചേട്ടാ നമസ്ക്കാരം ഞാനേ കോട്ടയത്തു നിന്നാണ് വിളിക്കണത് അപ്പോൾ ഞാൻ നേരത്തെ വിളിച്ചിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പം പത്തുമണിക്ക് അത്യാവശ്യായിട്ട് ഒരു സ്ഥലം വരെ പോവാൻ വേണ്ടിട്ട് ബുക്ക് ചെയ്തതാണ് പത്തുമണിക്ക് വാരാന്ന് പറഞ്ഞ ക്യാബ് ആണ് പന്ത്രണ്ടു മണിയും കഴിഞ്ഞു ഡ്രൈവർ നമ്പർ തന്നിട്ട് വിളിക്കണോ അത് സ്വിച്ച് ഓഫ് ആണ് കാണിക്കണത് അപ്പോൾ നിങ്ങൾ വേറെ നമ്പർ തന്നിട്ടുമില്ല നിങ്ങളെ നമ്പറിപ്പം മൂന്നാലു പ്രാവശ്യം വിളിച്ചിട്ടാണ് നിങ്ങളും എടുത്തത് ഡ്രൈവറെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഡ്രൈവർ എവിടെയെത്തിയെന്നോ എന്താന്നോ ലൊക്കേഷനിൽ വണ്ടി അനങ്ങീട്ടുപോലുമില്ല അവിടുന്ന് എന്താ സംഭവം അത് നമ്മളെന്തെങ്കിലും അത്യാവശ്യത്തിന് പോവാൻ വേണ്ടിട്ടല്ലേ ക്യാബും സർവീസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണത് നിങ്ങളപ്പം നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാണ് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങളെടുത്തു നിന്ന് ബുക്ക് ചെയ്യുന്നില്ല ഒക്കെ വണ്ടി ക്യാൻസൽ ചെയ്തോ അതും കൂടെ പറയാൻ വേണ്ടി വിളിച്ചതാണ്